കൃഷിയെ കുറിച്ച് ഞങ്ങൾ പുതിയ തലമുറയോട് എന്നും പറയാറുള്ളത് നാം ഒരു ചെടി നശിപ്പിക്കുകയാണെങ്കിൽ ഒരു പത്ത് ചെടി വെച്ച് പിടിപ്പിക്കണം ആദ്യം പത്ത് ചെടി വച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു ചെടി നിങ്ങൾ നശിപ്പിക്കാവു അതായത് നമ്മുടെ നമുക്ക് ആവശ്യമായ ഓക്സിജനും നമുക്കാവശ്യമായ പച്ചക്കറിയും എല്ലാം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആഹാര വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും എല്ലാം തരുന്നത് ചെടികളും കൃഷിക്കാരും എല്ലാമാണ് അതുകൊണ്ട് തന്നെ കൃഷിയെ നമ്മൾ വളരെ അധികം സ്നേഹിക്കണം നമ്മുടെ വീട്ടിൽ നമുക്കാവശ്യമായ പച്ചക്കറികളും നമുക്കാവശ്യമായ ഭക്ഷ്യ വസ്തുക്കളെല്ലാം ഉണ്ടാക്കാൻ നാം ഓരോരുത്തരും മുന്നിട്ടെറങ്ങണം എന്നാണ് നമ്മുടെ തലമുറയോട് പുതിയ തലമുറയോട് ഞങ്ങൾ പറയാറുള്ളത് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ നിറയെ പൂച്ചെടികൾ വളർത്തുക അതിൽ നിന്ന് പൂക്കൾ പൂച്ചെടികളിൽ നിന്ന് പൂവ് പൂമ്പാറ്റ അതുപോലെ ചെറിയ ചെറിയ പ്രാണികളെല്ലാം വന്ന് പൂവ് തേൻ കുടിക്കുന്നു അത് അവരുടെ ഭക്ഷണമാണ് അതേപോലെ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പൂവിൽ നിന്ന് അവർക്ക് ഒരു അടുത്തൊരു ജീവിക്ക് നമുക്ക് ഭക്ഷണം നൽകാനായിട്ട് സാധിക്കുന്നു അതേപോലെ നമ്മളാലാവുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൃഷിയിൽ ചെയ്യാൻ പറ്റു അതെല്ലാം ചെയ്യുക നമ്മളാലാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ നല്ല ഒരു കാര്യമാണ് ഒരു പൂന്തോ പൂന്തോട്ടം അല്ലങ്കിൽ ഒരു പച്ചക്കറിത്തോട്ടം പൂന്തോട്ടത്തിൽ നമുക്ക് കുറെ പൂക്കളെ ലഭിക്കും നമ്മുടെ വീ വീട്ടിൽ വൃത്തിയാക്കി വക്കാനും എല്ലാം നല്ലതാണ് പൂന്തോട്ടം വളർത്തല് അതായത് കുട്ടികൾക്ക് അതിലേക്ക് ഒരു ഇഷ്ട്ടം തോന്നിയാൽ അവരുടെ മനസ്സ് നല്ലതായി തീരുകയും അതിലേക്ക് ഒരൂ സം ഇഷ്ട്ടം വരുമ്പോൾ അവരെ നശിപ്പിക്കുന്ന ഒരു ശീലം ഇല്ലാതാവുകയും ചെയ്യും